ചെറുപ്പത്തിൽ തന്നെ പാചകത്തിനോട് വളരെ താൽപ്പര്യമുള്ള ഒരു വ്യക്തിയായിരുന്നു ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഉമ്മയുടെ കൂടെ പാചകം നോക്കി പഠിക്കുവാനും ഉമ്മയുടെ കൂടെ ഇരുന്ന് ഓരോ കാര്യങ്ങളും ഉമ്മ ചെയ്യുന്ന എന്ത്ക്കാ പാചകത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട് എങ്ങനെയാണ് ഉമ്മ പാചകം ചെയ്യുന്നത് എന്നൊക്കെ കണ് കാണാനും അത് രുചിച്ച് നോക്കിയിട്ട് ആ എല്ലാം കൊള്ളാം എന്ന് പറയാനുമൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയായിരുന്നു ഞാൻ എന്നാൽ അടുക്കളയിൽ കയറി പാചകം ചെയ്യാനുള്ള ആ ഒരു സമ്മതം എനിക്കില്ലായിരുന്നു പിന്നീടങ്ങോട്ട് എൻ്റെ ഉമ്മ ചെറിയ ചെറിയ കുട്ടികൾ അനിയത്തിമാരൊക്കെ ഉണ്ടായ സമയത്ത് ഉമ്മയെ സഹായിക്കാൻ വേണ്ടി അടുക്കളയിൽ കയറി ഓരോ വിഭവങ്ങൾ ഉണ്ടാക്കി കുഞ്ഞി കുഞ്ഞി വിഭവങ്ങളിൽ നിന്ന് വലിയ വലിയ വിഭവങ്ങളിലേക്ക് എത്തിപ്പെട്ടു അങ്ങിനെ അങ്ങിനെ വന്നിരുന്ന ഞാൻ കൊറോണ സമയത്തും ഇതുപോലെ പാചകങ്ങൾ കൂടുതൽ പഠിക്കുവാനും അതിനെപറ്റി കൂടുതൽ അറിയുവാനുമൊക്കെ എനിക്ക് കുറേ അവസരങ്ങളുണ്ടായി ഇതിൽ ഞാൻ ഏറ്റവും നേരിട്ടുള്ള രണ്ട് മൂന്ന് സംഭവങ്ങൾ എന്ന് വച്ചാൽ ഞാനൊരു പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പത്താം ക്ലാസ് എക്സാം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ കുറച്ച് വിരുന്നുകാരൊക്കെ വന്ന ഒരു സമയത്ത് ചോറ് കുക്കറിൽ വയ്ക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പം കുക്കറിൽ വച്ച ചോറ് വിസിലിൻ്റെ ഉള്ളിൽ എന്തോ കേറി അങ്ങനെ കുക്കറ് പൊട്ടിത്തെറിക്കുക ഉണ്ടായി ഈ ഒരു സമയത്ത് ഞാൻ അടുക്കളയിൽ ഉണ്ടായിരുന്നു കുക്കറ് പൊട്ടിത്തെറിച്ചു അവടെ ഞാൻ അതിൻ്റെ ഉള്ളിൽ അകപ്പെട്ട് പോയി ഞാൻ വളരെ എന്താണ് പറയുക അത്ഭുതകരമായി തന്നെ രക്ഷപെട്ടൊരു സംഭവം ഞാൻ നേരിട്ട് അനുഭവിച്ചൊരാളാണ് അപ്പോൾ അന്ന് എന്താണെന്ന് വച്ചാൽ എല്ലാവരും ഓടുമ്പോൾ എനിക്കും ഓടാമായിരുന്നു എന്നുള്ള ഒരു മനസ്സിലുണ്ടെങ്കിലും കൂടിയും ഞാൻ ഓടിയാൽ എത്തിപ്പെടില്ല കഴിഞ്ഞു ഇത് ഒരു അപകടം തന്നെയാണ് അത് ഞാൻ നേരിടേണ്ടിയിരിക്കുന്നു എന്നുള്ള ആ ഒരു തിരിച്ചറിവിലേക്ക് എത്തുകയായിരുന്നു ആ ഒരു സമയത്തുണ്ടായിരുന്നൊരു മനസ്സ് പക്ഷേ അതിൽ നിന്ന് രക്ഷപെട്ടപ്പോൾ ആ ഞാൻ ഭാവിയിൽ എന്തക്കെയോ ചെയ്യണം എനിക്ക് എന്ന് വച്ചാൽ അങ്ങനെ മരിച്ച് പോകേണ്ട ഒരാളല്ല എന്നെ കൊണ്ട് എന്തെങ്കിലിമൊക്കെ ഉപകാരങ്ങളോ അല്ലെങ്കിൽ ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങൾ ബാക്കിയിരിക്കുന്നത് കൊണ്ട് ജീവിതം ഇനിയും മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിച്ച ഒരാളാണ് എന്ന് തോന്നി ഒരാളാണ് ഞാൻ അങ്ങനെ അതിൽ നിന്നും മേലൊക്കെ കുറച്ച് പൊള്ളൽ ഒക്കെ ഉണ്ടെങ്കിലും കൂടി അത് മാറി നമ്മൾ കുറച്ച് സമയം എടുത്ത് അത് മാറി മാറി വന്നു ഇത് ഏറ്റവും മറക്കാൻ പറ്റാത്തൊരു അനുഭവമായിരുന്നു ഈ അനുഭവം തന്നെ രണ്ട് മൂന്ന് വട്ടം കുക്കറിൻ്റെ അനുഭവം രണ്ട് മൂന്ന് വട്ടം ഞാൻ നേരിട്ടിട്ടുള്ളൊരാളാണ് രണ്ട് വട്ടവും ഞാൻ രക്ഷപെട്ടിനെങ്കിലും മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ പിടിക്കപ്പെട്ടു അതിൽ വീഴുകയും മേത്ത് ആ ഫുള്ള് ചോറ് പോവുകയും അങ്ങനെ കുറേ പൊള്ളലൊക്കെ ഏറ്റിട്ടുണ്ട് ഇതായിരുന്നു ഞാൻ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എന്ന് പറയുന്നത്